അതെ അതെ ആർ എച്ച് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പിളാണ് ഇതാരാണ്

യദ്ദിനാണൊ ആ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി ആ പറഞ്ഞോളു ആ ഹാ ഹ

അതെ അതെ അതെ അതെ

ആ ഹാ ഹ ആ ആ എത്ര ദിവസത്തെ ട്രിപ്പാണ് മാം പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ഓ ഓ ടു അല്ലേ ഓ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ അറിയാമല്ലോ ഞാൻ പറഞ്ഞ് തരണ്ടല്ലൊ നമ്മുടെ ട്വൽവ്ത്താണ് ഈ പറഞ്ഞ പോലെ ലാബും കാര്യങ്ങളുവക്കെ നടന്നോണ്ടിരിക്കുകയാണ് എക്സാംസടുത്തോണ്ടിരിക്കാണ് യതിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫസ്റ്റ് സെം എക്സാമിന്റെ റിസൾട്ട് വന്നപ്പം ഞാനന്ന് കണ്ടായിരുന്നു കാരണം ഹ ലെവൻത്തിലൊന്നും ഇങ്ങനായിരുന്നില്ല പക്ഷേ ട്വൽവ്ത്തിലെത്തിയപ്പോഴത്തേക്കും ഉഴപ്പാനുള്ള ടെന്റൻസി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം അതെ അപ്പം ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം അറിയാല്ലൊ നമ്മുടെ ട്വൽവ്ത്തിന്റെ ഒക്കെ നമ്മുടെ സ്റ്റുഡൻറ്റ്സിൽ അത്രയും ബ്രൈറ്റായിട്ടുള്ള നമക്കെക്സ്പെക്റ്റേഷനുള്ളൊരു കുട്ടിയാണ് യതിൻ അപ്പം യതിൻറ്റേന്നൊന്നും ഒരിക്കലും നമ്മളിങ്ങനൊരു മോശം പെർഫോമൻസ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ട്രിപ്പിന്റെ കാര്യത്തിലൊഫ്ക്കോഴ്സ് അഞ്ച് ദിവസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അഞ്ച് ക്ലാസ്സ് മിസ്സാവുന്നുണ്ട് പിന്നിതിനിടക്ക് ലാബ് വരുന്നുണ്ട് പിന്നെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മുടെ എക്സാമിന്റെ സമയവും അപ്പോഴത്തേക്കും യതിൻ ഇത്രേം ക്യാച്ച് ചെയ്തെട്ക്കാൻ പറ്റീന്ന് വരില്ല അവനൊത്തിരി പുറകിൽ പോവും ഇപ്പോൾ പ്രൊ ഇവൻ കഴിഞ്ഞ എക്സാമിന് മാർക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം സമ്മതിച്ചേനെ കാരണം എനിക്ക് എനിക്കറിയാം യതിൻ ചിലപ്പോൾ അതിന്റെ കൂടെത്തൂന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് യതിന്റെ കാര്യത്തിൽ കുറച്ച് ഡൗട്ട് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു യതിനോടെന്നെ വന്നൊന്ന് കാണാൻ പറയു ഞാനൊന്ന് സംസാരിച്ച് നോക്കാം പിന്നെ ഇപ്പം കുട്ട്യേൾക്കെനിക്കറിയാം ട്വൽവ്ത്താണ് അവർക്ക് പ്രഷറൊക്കെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ട്രിപ്പൊക്കെ വളരെ ഇമ്പോട്ടൻറ്റാണ് പക്ഷേ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റീവെടുത്ത് നിങ്ങൾ പ്രോമിസ് ചെയ്യുക ഇത് കഴിഞ്ഞതിന് ശേഷം എക്സാമക്കെ കഴിഞ്ഞതിന് ശേഷം യതിനെ ട്രിപ്പിന് കൊണ്ട് പോവാം എന്ന് പ്രോമിസ് ചെയ്ത് അടുത്ത ഒരു ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവൻ പറഞ്ഞാൽ മനസ്സിലാകുവായിരിക്കും അപ്പം എന്തായാലും നിങ്ങൾ ടെൻഷനടിക്കണ്ട ഞാൻ യതിനെ കണ്ട് സംസാരിച്ചോളാം അപ്പം നാളെ യതിനോട് എന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി ഞാൻ ഡയറക്റ്റായിട്ട് പറയുന്നതിൽ യതിനോക്കെ അല്ലെങ്കിൽ ഞാൻ ടീച്ചറിനെക്കൊണ്ട് പറയിപ്പിച്ചോളാൻ അപ്പം ടെൻഷനാകണ്ട യതിനെ ഇവിടെവിടെങ്കിലും ആക്കീട്ട് പോവുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു മാം ഇവിടെ എന്നാണ്

ആ ഉറപ്പായിട്ടും ചെയ്തരാം മാം ഇങ്ങനുള്ള കാര്യങ്ങൾക്ക് ടെൻഷനടിക്കണ്ട ഇനി എന്തെങ്കിലുവിഷ്യു ഉണ്ടെങ്കിൽ ഇതുപോലെ വിളിച്ച് പറഞ്ഞാൽ മതി അത് ചെയ്ത് തരാം മാം കുഴപ്പമൊന്നുവില്ല ഓക്കെ താങ്ക് യൂ താങ്ക് യൂ